എനിക്ക് നല്ല ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ തയ്യൽ തുടങ്ങിയത് തയ്യൽ എനിക്ക് അധികം ഇത് തയ്യൽ തയ്ച്ചു തയ്യൽ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ആഗ്രഹമുണ്ടായിരുന്നു കട ഇടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല പക്ഷേ ഞാനിപ്പോഴും തയ്ക്കും ചെറിയ പിള്ളേരുടെ തന്നെയായിട്ടുള്ള കിഡ്സ് പിള്ളേരുടെ തന്നെയായിട്ടുളള ഒരു ഉടുപ്പും കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ളൊരു കട ഇടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അതൊരു നല്ലതല്ലെ മനസ്സിൽ സന്തോഷം കിട്ടുന്നൊരു സംഭവമാണ് ഈ നമുക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യുകയെന്നുള്ളത് അതൊരു കട കടയാണെങ്കിൽ അവിടെ പക്ഷേ കടയിടണമെന്നുള്ളത് അതാണെൻ്റെ ആഗ്ര അഭിലാഷം ഞാനെന്നാലും ഇപ്പോഴും തയ്ക്കുന്നുണ്ട് വല്ലിയവരുടെയാണെങ്കിലും ഞാൻ തയ്ക്കും പക്ഷേ കടയില്ല കട ഇടാനുള്ള സാഹചര്യമില്ല അതുകൊണ്ടാണ് വീട്ടിലിരുന്ന് സമയം കിട്ടുമ്പോൾ ഹസ്ബൻഡ് ജോലിക്കും പോയി പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളുമെല്ലാം കഴിയുമ്പോഴത്തേക്കിന് ഞാൻ വീട്ടിലിരുന്നു തയ്ക്കും അതാണിപ്പം ഞാൻ ചെയ്യുന്നത് കടയിടുന്നത് നല്ല കാര്യം പക്ഷേ അതിന് ഒത്തിരി കടയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമാണ് കടയിടാൻ അഗ്രഹമുണ്ടെങ്കിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഭയങ്കര ടെൻഷനാണ് കടയിട്ടു കഴിഞ്ഞാലാണ് കടയിൽ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് തയ്ച്ചുകൊടുക്കണം എന്നൊള്ളൊരു ഇതാ അതങ്ങനെകൊള്ള ഇതു വരുമ്പോൾ നമുക്കും നമ്മളെ പുറകോട്ടു വലിക്കും അതുകൊണ്ടാണ് കടയിടാൻ പറ്റാഞ്ഞത് അതെൻ്റെ ഒരു ആഗ്രഹമാണ്